ആ ഹലോ ആ ഇത് ആരാണ് പിന്നെ അബിനാസർ അല്ലേ ആ ഞങ്ങൾ പുരപ്പണി എന്താണ് ഒക്കെ ഇത് തുടങ്ങി എന്നൊക്കെ ഒരു വർത്തമാനം കേട്ടു ഉം ഇത് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് ആ എന്നിട്ട് ആരെ ആണ് ഇത് ഏൽപ്പിച്ചത് ഉം ഇന്ന് എന്നിട്ട് കുറേ കാലം ഉണ്ടാവുമോ അപ്പോൾ എടുക്കാൻ ഇല്ലേ ഏ അത്ര ആ ആറ് മാസത്തേക്കാണോ കൊടുത്തിക ആ എന്നിട്ട് അതിന് ഇപ്പം ഉണ്ടെത്ര പൈസ ഓർ പറഞ്ഞത് എഞ്ചിനീയർ പതിനഞ്ച് ലക്ഷം ഉം എന്നിട്ട് എങ്ങനെയുണ്ട് ഒക്കെ ഒന്നായിട്ട് ഒന്നിച്ചങ്ങനെ കൊടുത്തിരിക്കുക ആ എന്നിട്ടിപ്പോൾ എത്ര ബെഡ്റൂം ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ബാത്റൂമും ഹാളിലൊക്കെ ബാത്റൂമും ബെഡ്റൂമിൽ ആ അങ്ങനെ പിന്നെ മേലേക്ക് ഉണ്ടോ

പിന്നെ ആ എങ്ങനെയാണ് കരാർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കണോ അതോ നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുവോ ഉം ആ അതുകൊണ്ട് സുഖം ആണല്ലോ അല്ലേ ഭക്ഷണം ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ ആ അങ്ങനെ ആ സംഭവത്തിന് നല്ല അതുതന്നെയാണ് അങ്ങനെ അതാവുമ്പോൾ നല്ലത് ബംഗാളികളോ അതോ മലയാളി അങ്ങനെ മലയാളികളോ

ആ എന്നാൽ ഞാൻ ഒരു ദിവസം കാണാൻ വരുന്നുണ്ട് ഉം എന്നാൽ ശരി